ഇപ്പം നമ്മുടെ വയനാട് ജില്ലയിൽ സ്ത്രീകളെ എന്താ പറയാ സ്ത്രീകൾക്ക് അധികം വെല്ലുവിളികളൊന്നുമില്ല എന്നാലും വെല്ലുവിളികൾ നേരിടുന്നില്ലായെന്നും പറയുന്നില്ല വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിലായിരിക്കും കൂടുതലായിട്ടൊരു വെല്ലുവിളികൾ വെല്ലുവിളികൾ നേരിടുന്നത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം തന്നെ എന്താ നമ്മുടെ സാലറീടെ കാര്യം ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യേണ്ടത് സാലറി പുരുഷൻന്മാർക്ക് കൂടുതൽ സാലറീം സ്ത്രീകൾക്ക് താഴ് കുറവ് സാലറിയാണ് എപ്പോഴും കൊടുക്കാറ് ഏ അത് ഒന്നാമത്തെ ഒരു കാര്യമാണ് പിന്നെ വിദ്യാഭ്യാസം സാമൂഹിക സാമൂഹികായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും സ്ത്രീകൾ വെളിയിൽ നേരിടുന്നില്ല കാരണം എന്താ വെച്ചാൽ വിദ്യാഭ്യാസ സലോം സ് സ്ഥലങ്ങളിൽ തന്നെ സ്ത്രീകൾക്കാണ് മുൻഗണന കൊടുക്കുന്നതെപ്പളും പുരുഷന്മാർക്ക് കുറച്ച് കുറവായിട്ടാണ് നിൽക്കുന്നത് സ്ത്രീകളാണ് എപ്പോഴും മുന്നിലുണ്ടാവുന്നത് പിന്നെ അതുപോലെതന്നെ ലിംഗ സമത്വത്തിൻ്റെയൊക്കെ പേരിലാണെങ്കിലും ചില സ്ത്രീകൾക്ക് മാത്രം നേരിടുന്ന പ്രശ്നമാണ് ഇപ്പളും പെൺകുട്ടികളെ ഇഷ്ടമല്ലാത്ത മാതാപിതാക്കൾ ഇപ്പളും നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം